എൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞാൽ അദ്യം എൻ്റെ ബൈക്കിനെ കുറിച്ച് പറയാം എൻ്റെ ബൈക്കെന്ന് പറയുന്നത് ബുുള്ളറ്റ് ത്രീ ഫിഫ്റ്റീനാണ് അപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടത്തോണ്ട എടുത്തൊരു ബൈക്കാണ് അപ്പം ഞാനതിനെ പൊന്നു പോലെയാണ് കൊണ്ട് നടക്കാറുള്ളത് അപ്പം ഞാൻ അയിത്ത് വേറൊരു ബൈക്കും കൂടി ഒരു സ്കൂട്ടി ഉണ്ട് ചേതക്ക് അപ്പം ഞാൻ ബുള്ളറ്റും ചേതക്കൊക്കെ പരിപാലിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് കഴുകാറ് ബുള്ളറ്റ് ചിലപ്പം രണ്ട് മൂന്നും ചെലപ്പം ആഴ്ചയിൽ മൂന്നുനാല് ദിവസം ഒക്കെ കഴുകും കേട്ടോ ഈ പരിപാടികൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ കഴുകാറുണ്ട് അല്ലാതെ ഞാൻ നോക്കുവാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ കഴുകൽ ബുള്ളറ്റ് പിന്നെ ബുള്ളറ്റും ചേതയ്ക്കും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കഴുകുക ഞായറാഴ്ചയാണ് എനിക്ക് ലീവ് ഉണ്ടാവുക അപ്പം അത് അന്നാണ് ഞാൻ കഴിക്കൽ പിന്നെ ബൈക്ക് ഞാനൊരു കവറ് വെച്ചിട്ടൊരു മൂടും ബുള്ളറ്റിനും ചേതക്കിനൊക്കെ ഒരു ഒരു കവറ് ചെയ്യുക മീൻസ് ഒരു ഫുള്ളായിട്ടും മൂടുന്ന ഒരു ഒരു ഷീൽഡ് കവർ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ആണ് ഞാൻ ഇട്ട് കൊടുക്കൽ കാരണം ഈ പൂച്ചകളിൽ നിന്നും നായകളിൽ നിന്നും കാക്കകളിലും പക്ഷികളിലും നിന്നൊക്കെ ഞാൻ സംരക്ഷിക്കുന്നത് തന്നെ എൻ്റെ വൈക്കിനെയും രണ്ട് വൈക്കിനെയും സംരക്ഷിക്കുന്നത് ആ ഒരു കവറാണ് അത് ഭയങ്കര ഉപകാരമുള്ള ഒരു കവറാണ് പിന്നെ അതുപോലെത്തന്നെ ഞാൻ ബൈക്ക് കഴുകുമ്പോൾ ഷാംമ്പൂ യൂസ് ചെയ്തിട്ടാണ് കഴുകാറ് ഷാംമ്പൂ പ്ലസ് ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബൈക്ക് പല കഴുകാറ് അതിന് ശേഷം ഒരു വാമിംഗ് ക്ലോത്ത് ഉണ്ട് അതിനേറ്റിട്ട് ഒക്കെ ആണ് തുടച്ച് വൃത്തിയാക്കാറ് ചേതക്കായിട്ടാണ് ഞാൻ കൂടുതലും പുറത്ത് പോവാാറ് കാരണം ദാറ്റ് ഈസ് സോ ഗുഡ് ടു യൂസ് ബുള്ളറ്റ് യൂസ് ചെയ്യുന്നത് ഗുഡ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ചുംകൂടെ ബുളറ്റ് കുറച്ചുംകൂടെ എക്സ്പെൻസീവാണ് മൈലേജിൻ്റെ പ്രശ്നം കൊണ്ട് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ ചേതക്ക് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് പിന്നെ ബൈക്കുകൾ നമ്മൾ മടുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടം ഉള്ള ബൈക്കുകൾ ഒരിക്കലും നമ്മളെ മടുപ്പിക്കില്ല കാരണം നമുക്ക് അത്രയ്ക്ക് കംഫേർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ബൈക്കിനായിക്കാരം നമ്മൾ ചൂസ് ചെയ്യുക അപ്പം എനിക്കങ്ങനെ ഇതുവരെയ്ക്കും ഫീൽ ചെയ്തിട്ടില്ല ഇനി ഫീൽ ചെയ്യുകയും ചെയ്യില്ല കാരണം ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടും ആഗ്രഹിച്ചും വാങ്ങിയ ഒരു ബൈക്കാണ് ബുള്ളറ്റ് അപ്പം അത് എനിക്കൊരിക്കലും മടുക്കില്ല പിന്നെ ദീർഘയാത്രകളിൽ ഞാൻ ജാക്കറ്റും പിന്നെ അതുപോലെത്തന്നെ ഹെൽമറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അ പുറത്ത് പോകുമ്പോൾ ഹെൽമെറ്റ് ഇടുന്നെങ്കിലും ദീർഘയാത്രയിൽ ഞാൻ കൂടുതലും ഹെൽമറ്റ് ജാക്കറ്റ് അതുപോലെത്തന്നെ ബൈക്കിൽ യൂസ് ചെയ്യുന്ന കുറേ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ദീർഘയാത്രകൾ പോകുന്നത് അത്ര ഉള്ളൂ ഓക്കെ ബൈ